പത്ത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പതിനഞ്ച് പത്ത് ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂന്ന് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന്